ആ ഹലോ അതെയല്ലോ ആ സുഖമായിട്ടിരിക്കുന്നു ആ കടയിലാണ് കടയിലാണ്

ആ വടിയരിയുണ്ട് കുത്തരിയുണ്ട് പച്ചരിയുണ്ട് ബിരിയാണിയരിയുണ്ട് ബിരിയാണിയരിയുടെ വില നൂറ്റിയമ്പത് രൂപ ഓ ആണോ ആ ആണോ ആ കൂടുതല് എടുക്കുകയാണെങ്കില് വില കുറച്ച് തരാം ആ ഓക്കെ ഓക്കെ ഒരു ഒരു ഇരുപത് രൂപ കുറച്ചുതരാം കിലോയില് ആ എന്തോ ആ എത്തിച്ചുതരാമല്ലോ ആ തരാം തരാം

ആ ആ ആ ശരി ശരി ആ ഓക്കെ വേറെ വടിയരിയുണ്ട് പിന്നെ കുത്തരിയുണ്ട് പച്ചരിയുണ്ട് ഓ പുഴുക്കലരിയുണ്ട് ഏ ബസുമതിയരിയുണ്ട് ആ എല്ലാത്തരം അരിയുമുണ്ട് ഹമ് ഹോൾ സെയിലായിട്ടാണ് അതെയതെ ആ കൊടുക്കും കൊടുക്കും എന്തോ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉം ആ നന്നായിട്ട് തോന്നും

ആണോ ആ ആ ആ ആ ശരി ശരി ഇല്ലയില്ല ഒരു കുഴപ്പവുമില്ല ആ നല്ല ജോലിക്കാരാണ് എല്ലാം നല്ല ആ സാധാരണയുള്ളവരാണ് ഞാൻ ചെറിയ തോതിലാണ് തുടങ്ങി വെച്ചത് ഇപ്പോള് ഇത്തിരി ഒരുമാതിരി നല്ല നല്ല രീതിയിലായി

എന്തോ ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട്

ഹമ് ആ അതെ അതെ കഴിഞ്ഞ ദിവസം ചെയ്യാം ആ ആ അതെ അതെ ഓ നല്ല കാര്യമല്ലേ അതെ ഓ

ആ ശരി ഓക്കെ താങ്ക് യൂ ഹമ്